ഹലോ ആ എന്നാ ഉണ്ട് ആ വില ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അൽപ്പം കൂടുതലാണ് മഴയുണ്ട് എന്നാലും വണ്ടി സൗകര്യമൊക്കെ ഭയങ്കര പാടല്ലേ ഇപ്പോൾ ആ ആ ബീൻസിന് എന്നാ കഴിഞ്ഞ പ്രാവശ്യത്തിനും പത്ത് രൂപ കൂടുതലാണ് അങ്ങനെ വലിയ വില കൂടുതൽ ഒന്നും ഇല്ല വേണ്ടത് സാറും പറഞ്ഞോളൂ അതൊക്കെ നമുക്ക് ന്യായമായിട്ട് ചെയ്യാം

അത് മതിയോ അ ആണോ ആ ഹാ ഹാ ആ അരി ഇപ്പോൾ മട്ട അരി ആണെങ്കിൽ അമ്പത്തി അഞ്ച് രൂപ വിലയാണ് ആ അത് കൂടുതലാണ് എല്ലാത്തിനും ട്രാൻസ്പോർട്ട് ചാർജ്ജ് കൂടിയില്ലേ

അതൊക്കെ ടി വി കണ്ടു കൊ ണ്ടിരിക്കുകയല്ലേ നിങ്ങൾ സ്ഥിരം കണ്ടു കൊണ്ടിരിക്കണ കാരണം ആ ആ ആ ഏയ് നമ്മൾ ഒരിക്കലും ആരോടും അങ്ങനെ വില കൂട്ടി മേടിക്കാറൊന്നും ഇല്ല പ്രത്യേകിച്ച് നിങ്ങളെ പോലെ സ്ഥിരം കസ്റ്റമേഴ്സ് അങ്ങനെ മേടിക്കാൻ പറ്റുമോ

ജോലിയിലാണ് ആ വൻപയറോ ആ ഹാ ഉഴുന്നു പരിപ്പ് അല്ലേ ആ ഹാ ഹാ നമ്മുടെ ആണോ ആ നമ്മളെ കഴിഞ്ഞ ദിവസം കൊണ്ടു പോയ പച്ചക്കറി എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ സാധനം അല്ലായിരുന്നോ അത് ഈ മഴ വരുന്നത് കൊണ്ടാണ് അത് ഈ സവാളയ്ക്കും ഉള്ളിക്കും ഉണ്ട് ശകലം പ്രശ്നം ആ ഹാ ആ ആ ആ അത് കുഴപ്പമില്ല അടുത്തത് നല്ല സാധനം വരും കുഴപ്പമില്ല ഞാൻ എടുത്തു വയ്ക്കാമ് ആ ഹാ ഹാ ഞാൻ ഇപ്പോൾ ഒരു ശകലം വിലകൂടുതലാണ് കേട്ടോ ആ ആ ഹാ